എൻ്റെ ജീവിതത്തിൽ വളരെ അധികം ഹൈക്കിങ്ങ് നടത്തിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ എനിക്ക് ഈ കാഴ്ചകൾ കാണുന്നത് വളരെ ഇഷ്ട്ടമുള്ള ഒരാളാണ് അപ്പം ചെറിയ സാഹസ്യമായ ഹൈക്കിങ്ങും ഇതെല്ലാം എനിക്ക് വളരെ അധികം താല്പര്യമുള്ളതാണ് അപ്പം ഞാൻ മനസ്സിനൊക്കെ സന്തോഷം കിട്ടാനും വളരെ പിരുമുറുക്കമുള്ള അവസരങ്ങളിൽ ഒക്കെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ ഹൈക്കിങ് നടത്തി എൻജോയി ചെയ്യാറുണ്ട് അപ്പം അങ്ങനെ ഉള്ള ഒരു സ്ഥലങ്ങളിൽ ഞങ്ങളുടെ ഇടുക്കി ജില്ലയിൽ ഇവിടെ ഈ പത്താം മൈൽന് അടുത്ത് കാൽബരി മൗണ്ട്ന്ന് പറയുന്ന സ്ഥലത്ത് വളരെ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു ഒരു സ്ഥലമാണ് കാൽബരി മൗണ്ട് അവിടുത്തെ പ്രത്യേകതകൾ എങ്ങനെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ അത് ഒരു മലയുടെ ഏറ്റവും ടോപ്പ് ഭാഗത്താണ് അത് അത് ഒപ്പം ആ സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഒരു ഒരു പ്രദേശം മുഴുവനും വളരെ അധികം മല നിരകൾ കാണാൻ സാധിക്കും അതിൻ്റെ താഴെ ഈ ഇടുക്കി ജലാശയം അത് ആ സ്ഥലത്തിന് അഞ്ചുരുളി എന്നാണ് പറയുന്നത് ആ സ്ഥലം വളരെ മനോഹരമാണ് അത് അതിലെ ഈ തടാകം നമ്മൾ ഇടുക്കി ഡാം കെട്ടി ജലം നിർത്തിയിരിക്കുന്നത് ആണ് അതിൻ്റെ താഴ് വശത്തെ അപ്പം അവിടെ ഇരിന്ന് കഴിഞ്ഞാൽ അത് നയന്ന മനോഹരമാണ് അത് ആ കാഴ്ചകൾ കണ്ട് പിന്നെ പിന്നെ ആ മലയുടെ മണ്ടയിൽ കയറി ഇരിക്കുമ്പോൾ ഉള്ള പ്രത്യേകത എന്താന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഒരു എപ്പോഴും നല്ല കാറ്റാണ് അത് ഏത് സമയത്തും ഈ കാറ്റ് നല്ല ശക്തമായ കാറ്റ് നല്ല സുഖകരമായ രീതിയിൽ ഉള്ള കാറ്റാണ് അപ്പം അത് വേനൽ കാലങ്ങളിൽ പിന്നെ സയാം സന്ധ്യകളിൽ ഒക്കെ അവിടെ പോയിരിക്കുക എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഇതാണ് വളരെ അധികം അസാധ്യകരമാണ് ഈ ഒരു ആറ് ആറ് അര മണി സായം സന്ധ്യകളിൽ ഒക്കെ സൂര്യാസ്ഥമയനം കാണാൻ അസ്തമനം കാണാൻ ഭയങ്കര ഭംഗിയാണ് ആ പടിഞ്ഞാറ് പിന്നെ ഈ മൃഗങ്ങളിൽ എല്ലെ മലയുടെ ഒക്കെ സംഘങ്ങളിൽ ഈ സൂര്യൻ മറയാനായിട്ടുള്ള ആ ഒരു അവസാനത്തെ ആ ഒരു അ അ ഒരു കാഴ്ച എന്ന് പറയുമ്പോൾ നല്ല വർണ്ണ സഫലമായിട്ട് നമ്മുടെ കണ്ണിന് വളരെ അധികം ആസ്വാദ്യകരമാണ് നമ്മൾ അങ്ങനെയാണ് ഹൈക്ക്ന്നാടത്തുമ്പോൾ നമുക്ക് എന്തെന്നറിയാത്ത മനസ്സിനെ സന്തോഷവും പിന്നെ പിന്നെ എൻജോയ്കരമായ ഒരു അവസ്ഥ ആണത് അത് ഈ കാൽവര്യ മൌണ്ട് വളരെ അധികം ഏതെല്ലാം സ്ഥലങ്ങളിൽ നിന്ന് മറ്റ് ജില്ലകളിൽ നിന്നും എന്തിന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നു ഒക്കെ ഉള്ള ആൾക്കാർ വന്ന് അവിടെ സമയം ചിലവഴിക്കാറുണ്ട് അവിടെ ഒരു ഒരു പ്രത്യേക സ്ഥലമാണ് നമുക്ക് എപ്പോഴും നമുക്ക് പിന്നെ ജീവിത പങ്കാളിയായിട്ടും മക്കളൊക്കെയായിട്ട് പോയിരുന്ന് വർത്തമാനം പറഞ്ഞ് പിന്നെ എൻജോയി ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് അപ്പം അ താ താഴെ പിന്നെ ഹൈ വേ റോഡിൽ നിന്ന് ഒരു ഒരു രണ്ട് കിലോമീറ്ററ് ഒരു ഒന്ന് അര കിലോ രണ്ട് കിലോമീറ്ററ് ഏകദേശം ഒരു വളഞ്ഞ ഉള്ള വഴികൾ ആ വഴിയിലൂടെ നമ്മൾ പിന്നെ നടന്ന് കയറിയാൽ പണ്ട് ടോപ്പിൽ ചെല്ലുമ്പോഴാണ് ഈ കാൽപരിമൗണ്ടെന്ന് പറയുന്ന സ്ഥലം കാണുന്നത് അപ്പം അത് നല്ല അട്രാക്റ്റീവാണ് അതുപോലെ അട്രാക്റ്റീവായിട്ടുള്ള മറ്റ് സ്ഥലങ്ങളുണ്ട് ഇവിടെ രാമക്കൽമേടെന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അതായത് കേരള തമിഴ്നാട് ബൗണ്ടറി അവിടെ നമുക്ക് വളരെ അധികം പിന്നെ എൻജോയി ചെയ്തിരുന്ന കാഴ്ചകൾ ഒരു വശത്തേക്ക് നോക്കിയാൽ അതായത് കിഴക്ക് വശത്തോട്ട് നോക്കിയാൽ അവിടെ തമിഴ്നാടിൻ്റെ ഏറിയാണ് വളരെ വിസ്തൃതമായിട്ട് പരന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് നല്ല നിരപ്പ് സ്ഥലം ആ ഈ രമക്കൽമേടിൻ്റെ ടോപ്പിൽ കയറി നിന്ന് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു മൂവായിരം അടി പിന്നെ താഴ്ചയിൽ ഈ തമിഴ്നാട് ഡി പിന്നെ സംസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് അത് ഏകദേശം അതിൻ്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ നമുക്ക് ആ ടോപ്പിൽ നിൽക്കുമ്പോൾ ഈ തമിഴ്നാടിൻ്റെ ഒരു ഒരു ഏറിയ ശതമാനം ഭാഗങ്ങൾ നമുക്ക് അത് പിന്നെ നമുക്ക് കാണാൻ പറ്റും അതെന്നാന്ന് ചോദിച്ചാൽ നിരപ്പായ പ്രദേശമായത് കൊണ്ട് കുന്നും മലകളുമായിട്ട് അങ്ങനെയല്ല നമ്മുടെ കേരള സംസ്ഥാനത്തെ ഇടുക്കിയിലെ പോലെ എന്നുള്ള സ്ഥലമല്ല തമിഴ്നാട്ന്ന് പറയുന്നത് നല്ല നിരപ്പായ സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഒരു ഭയങ്കര ഏറിയ നമുക്ക് കവർ ചെയ്യുന്നതായിട്ട് അനുഭവപ്പെടും അവിടെ ഈ കൂടുതലും പിന്നെ പച്ചക്കറികൾ ല്ല ഹൃസ്വ ചെടികൾ ഒക്കെയാണ് അതുകൊണ്ട് വലിയ മലനിരകളോ അല്ലെങ്കിൽ വലിയ മരങ്ങളോ ഒന്നും ഇല്ലാതെ ഇതിങ്ങനെ നെൽപ്പാടങ്ങൾ പിന്നെ പച്ചക്കറി കൃഷികൾ തെങ്ങും തോ തോട്ടങ്ങൾ അങ്ങനെ അത് ഒരു ഒരു അട്രാക്റ്റീവ് ഓഹ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ഒരു പ്രദേശമാണ് ഈ രാമക്കൽമേട് എന്ന് പറയുന്ന സ്ഥലം അവിടെ ഒരു കുറുവൻ കുറത്തി എന്ന പണ്ട് ഉണ്ടായിരുന്ന ഒരു ഇതാണ് ആദിവാസികളാണ് കുറുവൻ കുറത്തി അവരുടെ ഒരു സ്റ്റാച്യുസ് അവിടെ പണിതു വെച്ചിട്ടുണ്ട് വളരെ വളരെ മനോഹരമാണ് നല്ല ടൂറിസ്റ്റുകളൊക്കെ ഒക്കെ വന്ന് അവിടെന്ന് ഫോട്ടോട്ക്കയും പിന്നെ ഭയങ്കരമായിട്ട് ആ ഒരു പ്രദേശം കണ്ട് ഇഷ്ടപ്പെട്ട് എൻജോയി ചെയ്യാൻ വളരെ അധികം ആളുകൾ പിന്നെ അവിടെ സ്ഥലങ്ങളിൽ വരുന്നുണ്ട് അതുപോലെ ഒരു ഹൈക്ക് നടത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണ് യേഴ് കുമ്പയല്ല് കുരിശുമല എന്ന് പറയും ഇടുക്കിയിൽ ഇതെല്ലാം ഇടുക്കി ജില്ലയിൽ പെട്ട സ്ഥലങ്ങളാണ് യേഴ് കുമ്പയല്ല് ഒരു കുരിശുമലയുണ്ട് അത് അത് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല മലയാറ്റൂരു മല ഇക്ക് സമാനം ഉള്ള ഒരു പോലുള്ള ഒരു മലയാണ് ഇത് ചെങ്കുത്തായ പാറക്കെട്ടുകളും അതിലൂടെ ചെറിയ രീതിയിൽ വെട്ടി ഉണ്ടാക്കിയിരിക്കുന്ന നടപാതകളുമാണ് അങ്ങോട്ട് പോകാനുള്ള ഏക ആശ്രയം അവിടെ ഈ വലിയ നോയമ്പ് കാലങ്ങളിലൊക്കെ ഈ മലകയറ്റത്തിന് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വളരെ അധികം ആളുകൾ ഒന്ന് കയറി ഇറങ്ങി പോകുന്നുണ്ട് അത് അവിടെ ഈ പറഞ്ഞത് പോലെ ഇതിൻ്റെ ഈ മലയുടെ മണ്ടയിൽ ചെല്ലുമ്പോൾ ഒരു ഭയങ്കര ത്രില്ലാണ് അവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ പിന്നെ ഇടുക്കി ജില്ലയിലെ ഒരു ഏകദേശം ഒരു പത്ത് നാൽപ്പത് നാൽപ്പത് ശതമാനം മേഖലകൾ നമുക്ക് അതായത് മൂന്നാറ് തൊട്ട് ഇങ്ങനെ ഉള്ള പ്രദേശങ്ങൾ നമുക്ക് ആ മലയുടെ മണ്ടയിൽ നിന്നാൽ നമുക്ക് കാണാൻ പറ്റും അപ്പം അങ്ങനെ നല്ല രീതിയിൽ ഉള്ള ഒരു അനുഭവമാണ് യേഴുമല കുരുശുമലയുടെ മണ്ടയിൽ കയറിയാലും ഇവിടെയല്ലാം ഉള്ളൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ പൊ ഈ പൊക്കം കൂടുന്ന മലകൾ നറകളില ഉണ്ടാകുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത് നല്ല കാറ്റ് നല്ല ഇളം കാറ്റ് ഏത് സമയത്തും ഇങ്ങനെ പിന്നെ വീശിയടിക്കും അപ്പം വേനൽ കാലങ്ങളിൽ നമുക്ക് ആ മലകളിൽ കയറി പിന്നെ എൻജോയി ചെയ്യാൻ വളരെ സുഖകരമായിരിക്കും ഒരു ചൂടന്ന് പറയുന്ന ഒരു അനുഭവം ഉണ്ടാകത്തില്ല നല്ല തണുത്ത കാറ്റ് നമുക്ക് സർവ എല്ലാ മടുപ്പുകളും നമുക്ക് മാറ്റി നമുക്ക് അത് പരമാവധി ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഇതാണ് ഈ യെഴുമലയിൽ മല എനിക്ക് ഇപ്പം ഇങ്ങനെ കുറെ മലകൾ ഇനിയും പറയാനുണ്ട് അപ്പം ഏതായാലും ഈ രണ്ട് മൂന്ന് സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ മറക്കാൻ മേലാത്ത ഒരു അനുഭവമാണ് നമുക്ക് ശരിക്കും പറഞ്ഞ് കഴിഞ്ഞാൽ കേരളത്തിൽ പിന്നെ വയനാടും ഇടിക്കിയൊക്കെയാണ് ഇതുപോലെ ഈ ഹൈക്കുന്ന ഹൈക്കിങ്ങ് നടത്താൻ പറ്റുന്ന പിന്നെ ജില്ല ജില്ലകൾ ഇടുകി ജില്ലയിലെ മിക്ക സ്ഥലങ്ങളിലും ഇങ്ങനത്തെ സ്ഥലങ്ങൾ ഉണ്ട് കഴിയുന്നിടത്തോളം ആളുകൾ ഇങ്ങനെയൊക്കെ ഒന്ന് അത്യാവശ്യം പോയി ഈ പിന്നെ ഒന്ന് വിശ്രമിക്കുകയും ഒന്ന് എൻജോയ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പിന്നെ ഈ കൂടുതലായിട്ടുള്ള ഈ എന്താ പറയാ ടെൻഷൻ പോലെ ഉള്ള ഇതെല്ലാം ഒന്ന് എന്നാ ആയി വരുത്തുവാൻ സാധിക്കും ഓക്കെ